ആറ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പത്ത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് എട്ട് ഒന്ന് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി അഞ്ച് പത്ത് പതിനഞ്ച് രണ്ടായിരത്തി ആറ്